ഞങ്ങളുടെ പള്ളിയിൽ നെയ്ത്ത് പഠിപ്പിക്കാനും തയ്യൽ പഠിപ്പിക്കാനും അതുപോലെ തന്നെ കര കൗശല വസ്തുക്കളുണ്ടാക്കുന്നതിനും ഒക്കെ ആയിട്ട് ട്രെയിനിങ്ങതിനു വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരി ചാസിൽ നിന്നാൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതു പഠിച്ചതു വഴിയായിട്ട് ഞങ്ങൾ സാരി പ്രിൻ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബെഡ് ഷീറ്റ് മ് മേശ വിരി ഇങ്ങനെയുള്ളതെല്ലാം പ്രിൻറ്റ് ചെയ്ത് ഞങ്ങളത് പിന്നെ പള്ളിയിൽ വ്യാപാര മേളയ്ക്കു വെച്ചിട്ട് അവരുടെ അതു വിൽക്കുകയും അതു പോലെ തന്നെ പാവപ്പെട്ട കുഞ്ഞങ്ങൾക്കത് എന്നാ ഇതു പോലെ സാരി ഒക്കെ വാങ്ങിച്ചവർക്ക് തൈച്ച് കൊട് പ്രിൻറ്റ് ചെയ്തു കൊടുക്കുകയുമൊക്കെ ചെയ്തിരുന്നു അവർക്കൊക്കെ അതു വളരെ സന്തോഷമായിരുന്നു അപ്പോൾ അവരത് നമ്മൾ തന്നെ ചെയ്തതായതു കൊണ്ട് അവർക്കത് വളരെ സന്തോഷകരമായിട്ട് അവരത് സീകരിച്ചു അവരത് എന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും അതു പോലെ അവർ ചെയ്തതാണിത് എന്നു പറഞ്ഞപ്പോളവർ ഞങ്ങളെ തിരിച്ചു വന്നു ഞങ്ങളെ അവരോ അവരെ അവർ ഞങ്ങളെ അഭിനന്ദിക്കുകയും ഞങ്ങൾക്കൊത്തിരി പ്രോത്സാഹനം തരികയും ചെയ്തു അതു പോലെ തന്നെ ഞങ്ങൾ തയ്യൽ പഠിച്ചിട്ട് പാ എന്നാൽ ഓരോ ത്തർക്കും തൈച്ചത് ആദ്യമായിട്ടു തയ്ച്ചതൊക്കെ ഞങ്ങളോരോരുത്തർക്ക് സംഭാവന ചെയ്തു അവർക്കുമൊക്കെ വളരെ സന്തോഷമായിരുന്നു അവർ ഞങ്ങളെ അത് അതിൻ്റെ തയ്യലിനെപ്പറ്റിയും ഞങ്ങൾ ചെയ്യുന്ന സേവനത്തേപ്പറ്റിയൊക്കെ അവർ ഞങ്ങളോട് നല്ല അഭിപ്രായം പറഞ്ഞു അവർക്കത് വളരെ സന്തോഷമായിരുന്നു അതു പോലെ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ കഴിവുകളെ ഞങ്ങൾക്ക് വികസിപ്പിക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് വീടുകളിൽ വീട്ടിലാണെങ്കിലും വല്ലതും മേടിച്ചു ഞങ്ങളുപയോഗിക്കാതെ കണ്ട് ഞങ്ങൾ തന്നെത്താനെ അതു പോ പിന്നെ ഓരോ സാധനങ്ങൾ നിർമ്മിക്കുക വൻ ചവിട്ടികളൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി അതും ഞങ്ങളെ ഇവിടെ പഠിപ്പിച്ചതാണ് ആ ചവിട്ടികളൊക്കെ ഉണ്ടാക്കി ഞങ്ങളത് വൻ നേ ഞങ്ങളുടെ വീടുകളിലുപയോഗിക്കുകയും ഞങ്ങളുടെ ബന്ധപ്പെട്ടവർക്കും ഞങ്ങളിതുപോലെ തന്നെ ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒത്തിരി എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളായ ഞങ്ങളേക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ അത് ഓരോന്നും ഞങ്ങളുടെ അവർ പറഞ്ഞു തരുന്ന ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽക്കൂടി പറഞ്ഞു തന്ന് അതിൽ ഞങ്ങളത് അതു കേട്ടിട്ട് ഞങ്ങളത് ചെയ്തു കൊടുത്തിട്ട് അതും ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു ഞങ്ങളെ സംഘത്തിൽ ആവാ നിന് പഠിക്കാനായിട്ടു വരാഞ്ഞ കുട്ടിക അവാനും ചെ അമ്മമാരെ ഞങ്ങളതു പറഞ്ഞു കൊടുത്തവരെ പഠിപ്പിച്ച് അവരുമതിനകത്ത് പങ്കാളികളായിട്ട് അവർ അവരുടെ വീടുകളിൽത്തന്നെത്താനെ ഉണ്ടാക്കി അവരുപയോഗിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഞങ്ങൾക്ക് അതു ഞങ്ങളാൽ ഞങ്ങൾത്തന്നെ നിർമ്മിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നതും ഞങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങളോരോരുത്തരും എന്തെങ്കിലും പരിപാടികൾക്കു വിളിക്കുമ്പം ഞങ്ങൾ തന്നെ പ്രിൻറ്റ് ചെയ്ത സ്വയമേ മേശവിരികളും ബെഡ് ഷീറ്റുകളും ഒക്കെ ഞങ്ങൾ അവർക്ക് സമ്മാനമായിട്ട് ഓരോ ക്രിസ്മസ് അതിനു ക്രിസ്മസ് ഫ്രണ്ടിനായിട്ടും അതു പോലെ തന്നെ എന്നാ ബർത്ത് ഡേ വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളവർക്ക് സമ്മാനം കൊടുക്കുന്നതുമാണ് സാധനങ്ങളൊക്കെയാണ് അപ്പം അവർക്കുമതു പ്രയോജനമാണ് അവർക്കെന്നുമോർമ്മിക്കാനുള്ള ഒരു ഇതുമാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളേപ്പറ്റി അവരുടെ മനസ്സിലെപ്പോഴും നില അവർ പറയുന്നത് അതുപയോഗിക്കുമ്പോഴെല്ലാം നിങ്ങളെ ഞങ്ങളോർക്കും നിങ്ങൾക്കു വേണ്ടി ഒരു നിമിഷം ഞങ്ങളൊന്നു പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പം അതു നമുക്ക് പ്രാർത്ഥനയുമായി സന്തോഷം അവരുടെ മനസ്സിൻ്റെ സമ സന്തോഷവും നമുക്ക് കിട്ടി പിന്നെ വളരെ സന്തോഷം സംതൃപ്തരാണ്